ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ താജ് മഹൽ എന്ന് പറയുന്ന മുംതാസിൻ്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഷാ ജഹാൻ കഴിപ്പിച്ച ഒരു വലിയ ഒരു കൊട്ടാരമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് ഇത് കാണാൻ നമ്മൾ കയറിചെല്ലുമ്പോൾ ഒരു വെള്ള പ്രകാശംപോലെ അതിന് മുൻപിലോട്ടു ചെല്ലുമ്പോൾ താജ്മഹൽ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് കാണാം ലോകത്തിൽ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ ഏഴ് മഹാത്മങ്ങ അത്ഭുതങ്ങൾ ഉള്ളതിൽ ഏറ്റവും അതിൽ ഒന്നാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് താജ്മഹൽ കാണാൻ ഭയങ്കര ആൾക്കാരാണ് കാണാൻ നമ്മൾ മൂ നമ്മൾ മൈൻഡേ മാറുന്ന അത് പോ പൊളിയായിട്ടുള്ള ഒരു സ്ഥലം താജ്മഹൽ എന്ന് പറയുന്നത് ഞാനും ഫാമിലിയുമായിട്ട് ടൂറിന് ഒരു ദിവസം പോയതാണ് ഡൽഹിയിലാണ് താജ്മഹൽ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഫാമിലിയായിട്ട് പോയപ്പം അവിടെ പോയി കുറെ എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ട് കുറെ കാണാനുണ്ട് നമുക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും പോകാൻ തോന്നും അവിടെയൊക്കെ അത്രയും ബ്യൂട്ടിഫുള്ളാണ് പിന്നെ പോയത് മൈസൂരാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂർ കൊണ്ട് പോയതാണ് മൂന്ന് ദിവസത്തെ ടൂറായിരുന്നു അന്ന് ഞങ്ങൾ ആദ്യം പോയത് ഇവിടെയാണ് മൈസൂർ സിൽക്ക് പാലസ് പാലസ് അടിപൊളിയാണ് കാണാൻ നല്ല രസമാണ് പഴയ രാജാവിൻ്റെ ഡ്രെസ്സുകളും അവിടുത്തെ ഭടന്മാരുടെ ഡ്രെസ്സുകളും അവിടുത്തെ ആയുധങ്ങളും അങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ കുറെ കാണാനുണ്ട് അടിപൊളിയാണ് കാണാൻ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നമ്മൾ ഒരുമണിക്കൂറങ്ങാണ്ട് ക്യൂ നിന്നാണ് ലൈൻ നിന്നാണ് നമ്മൾ കാണുന്നത് ഒന്നും തൊടാൻ ഒക്കത്തില്ല വളരെ ഭംഗിയാണ് കാണാൻ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ ഒക്കെ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി നിന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്താണ് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അവിടെ തന്നെയുള്ള വാട്ടർ വേയിലാണ് ഈ രാജാവിൻ്റെ തന്നെ ശിഷ്യകൾ ചെയ്യുന്ന ഗ്രാമത്ത് ശിഷ്യകൾ വാട്ടർ വേയിൽ അതൊക്കെ പോയി കണ്ടതാണ് പിന്നെ ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലാണ് ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരവും കാണാൻ കുറെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഒത്തിരി കാണാനുണ്ട് ഒരു വലിയ കൊട്ടാരം അവിടെ ഇങ്ങനെ ഓരോ രാജ സദസ്സ് അവിടെ ആൾക്കാരിരിക്കാൻ ഉള്ള സ്ഥലങ്ങൾ മന്ത്രിമാറിരിക്കുന്നത് ഒക്കെ ഞങ്ങളെ കാണിച്ച് തരാൻ ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ ഗൈഡ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി പിന്നെ പോയത് വൃദ്ധാവനം ഗാർഡനിലാണ് അത് അടിപൊളി വ്യൂവാണ് അവിടെ കാണാൻ ഒരു വലിയ ഡാം ഡാമിൻ്റെ അടുത്തായിട്ട് വലിയ ഗാർഡൻ ഗാർഡൻ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ആറുമണിയായിരുന്നു അവിടെ പോയിട്ട് കുറെ നേരം കഴിഞ്ഞ് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടായിരുന്നു ഞാനും വേറെ കൂട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടി ആ വാട്ടർ ഡാൻസ് കാണാൻ വേണ്ടി അവിടെ പോയി നിന്ന് ഒരു പാട്ടിടുമ്പോൾ വാട്ടർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരിക അപ്പോൾ അതിനകത്ത് പാട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കും അത് ഞങ്ങൾ കണ്ട് ഞങ്ങൾ അവിടെയൊക്കെ കുറെ കളിക്കാനും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ എന്ജോയ് ചെയ്യാൻ കുറെ സ്ഥലങ്ങളുണ്ട് വലിയ ഗാർഡൻ ഇഷ്ടംപോലെ പൂക്കൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ ഞങ്ങൾ കൂട്ടുകാരൊക്കെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് നമ്മൾ പോയത് ചാമുണ്ഡേശ്വരി എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലാണ് അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിരിന് നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു അമ്പലം നമ്മൾ അമ്പലത്തിൽ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇന്ന സമയം ആകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ട് ഒരു രണ്ട് രണ്ട് രണ്ടര മൂന്ന് കിലോ മീറ്ററുകളോളം റോഡാണ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഫുൾ കടകളാണ് എന്നിട്ട് ആ കടകൾ കഴിഞ്ഞ് നമ്മൾ രണ്ട് കിലോ മീറ്റർ നടന്ന് നേരെ അമ്പലത്തിൻ്റെ അവിടെ ചെല്ലും അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അതായത് തീരുമ്പോൾ കടകളിൽ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാം സാധനം മേടിക്കുമ്പോൾ ബാർഗൈൻ ചെയ്യണം അവർ നല്ല റേറ്റ് പറയും നമ്മൾ അത് കൊ കുറച്ച് പറഞ്ഞ് സാധനങ്ങൾ മേടിക്കണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങൾ ഒക്കെ മേടിച്ച് കുറെ നേരം അവിടെ എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് വണ്ടിയിൽ കയറി ഞങ്ങൾ പോയ വണ്ടി അടിപൊളി വണ്ടിയായിരുന്നു പാട്ടൊക്കെ ഇട്ട് തുള്ളി ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ പിന്നെ വന്നത് പിന്നെ കൊടക് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ വെള്ളച്ചാട്ടം ഒക്കെ ആയിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് വെള്ളച്ചാട്ടം പിന്നെ അവിടെ ചെന്ന് അവിടെ വെള്ളത്തിൽ ഒക്കെ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവിടെ നിന്ന് മുള മുളയുടെ ഒരു സംഭവമുണ്ട് മുളകൊണ്ട് എന്തോരു ആരാധന പോലെ അവിടെ പോയി അവിടെ നിന്ന് സാധനം മേടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ മിഠായി സ്വീറ്റ്സ് ഒക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബുദ്ധൻ്റെ അമ്പലത്തിലാണ് കയറിയത് അവിടെ അടിപൊളിയാണ് വലിയ ഒരു അമ്പലം അവിടെ വലിയ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിഷ്ഠപോലെ ഒരു വിഗ്രഹം പോലെ പിന്നെ അവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ മൊട്ടയടിച്ചിട്ടായിരുന്നു കൊച്ചു പിള്ളേർ തൊട്ട് പ്രായമുള്ളവർ വരെ ബുദ്ധൻ്റെ ഇത് സന്യസിക്കുന്ന സന്യാസികളെ പോലെ ഉള്ളവർ ഞങ്ങൾ അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവിടെ കുറേനേരം എക്സ്പ്ലോർ ചെയ്ത് നടന്ന് ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി തിരിച്ച് വന്ന് പിന്നെ പോയത് വയനാടാണ് ഞാൻ അത് പോയത് ഫാമിലിയായിട്ടാണ് പോയത് വയനാട് പോയപ്പോൾ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട് അവിടെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പം ആദ്യം പോയി ചുരം കണ്ടു ചുരത്തിൽ നിന്ന് വണ്ടി കയറിവരുന്നത് കാണാൻ അടിപൊളിയാണ് അവിടെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് അവിടുത്തെ പ്രത്യേകതരം ഫുഡ് ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് മൂന്നാർ പോയി മൂന്നാർ പോയത് അടിപൊളി ഞങ്ങൾ മൂന്നാർ പോയിട്ട് അവിടെ നിന്നൊരു മൂന്ന് മണി നാല് സമയം ആയപ്പോൾ മൂന്നാർ പോയിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് ഒരു ആറുമണിയൊക്കെ ആയപ്പോൾ മഞ്ഞ് വന്ന് വീണ് പിന്നെ ഒന്നും കാണാൻ മേല ഫുൾ മഞ്ഞ് അ അപ്പുറം നിൽ ക്കുന്ന ആളെപോലും കാണാൻ പറ്റില്ല അതുപോലെ മഞ്ഞ് മൂടി അവിടെയൊക്കെ മൂന്ന് മണി സമയത്തും മഞ്ഞാണ് ഫുൾ ടൈം മഞ്ഞ് ഏത് സമയവും മഞ്ഞാണ് അവിടെയൊക്കെ അത്രക്ക് മനോഹരമായ സ്ഥലമായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു വലിയ കയറ്റം കയറിയാണ് പോകുന്നത് കയറ്റം കയറുന്നത് കാണുന്നതേ അടിപൊളിയാണ് നല്ല രസമാണ് ആ കേറ്റം കേറി പോകുന്ന വഴിക്കൊരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ ആളുകളൊക്കെ ചിക്കുന്നെ കാണാം അവിടെ ചെന്നിട്ട് ഞങ്ങള് ആ വെള്ളത്തിലിറങ്ങി ഒക്കെ ചെയ്ത ഫോട്ടോയൊക്കെ എടുത്ത് അത് നമ്മൾ എടുക്കുന്ന സമയത് ഇങ്ങനെ കള കള ഒക്കെ ഉണ്ടാകാറുണ്ട് ബജി അങ്ങനെയുള്ള സാധങ്ങളൊക്കെ കഴിക്കാൻ പറ്റും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ബസ് കയറി തിരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് കർണ്ണാടകയിലാണ് അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിലൊക്കെ പോയി അത് പൊളി ആയിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ പോയത് ഞങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ നമ്മൾ ടൂറിന് പോയത് ഗോവക്ക് ആയിരുന്നു അത് നമ്മൾ ട്രെയിനിലാണ് പോയത് അത് ഇങ്ങനെ ടൂറിസ്റ്റ് ബസിന് പോകാൻ പറ്റാത്തതു കൊണ്ട് ഇത്ര രൂപ കൊടുത്ത് ട്രെയിൻ അവിടെ ചെന്നിട്ടായിരുന്നു ടൂറിസ്റ്റ് അവിടെ നമ്മൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ബീച്ചിൽ പോയി ബീച്ചിൽ പോയിട്ട് കുറെ നേരം നിന്ന് അവിടെ ഒക്കെ ബീച്ചിൽ പോയി നല്ല രസമാണ് ബീച്ചൊക്കെ കാണാൻ ഫുൾ ആൾക്കാർ എപ്പോഴും പരുപാടി അങ്ങനെ ഇവിടുത്തെ ഫുഡിന് ഒക്കെ ഭയങ്കര പൈസയായിരുന്നു ഞങ്ങൾ പൈസയൊക്കെ കളക്റ്റ് ചെയ്ത് പോയിട്ട് കൂട്ടുകാരൊക്കെയായിട്ടാണ് പോയത് ഫ്രണ്ട് ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് വന്ന് അത് പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്താണ് അടുത്ത് എന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളു ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞാൽ കോട്ടയം ആണെങ്കിലും ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ ബീച്ചിൽ പോകാൻ അടിപൊളിയാണ് ഒരു ദിവസം ന്യൂ ഇയറിന് ഞങ്ങൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ന്യൂ യറിന് പോയി ബീച്ച് കാണാൻ അവിടെ ഇങ്ങനെ വലിയ പാർട്ടിയൊക്കേ ഉണ്ടായിരുന്നു ന്യൂ യറിന് ഞങ്ങൾ പോയിട്ട് പാർട്ടിയൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് ബൈക്കിലാണ് പോയത് പതുക്കെ റൈഡ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഒരു എട്ടുപേരുണ്ടായിരുന്നു നാല് ബൈക്ക് സൂപ്പറായിട്ട് പോയിട്ട് ആദ്യം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് പിന്നെ പാട്ടൊക്കെ ഇട്ട് അവിടെ നിന്ന് തുള്ളുവോം അങ്ങനത്തെ പരുപാടിയൊക്കെ ചെയ്ത് ഒരു രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്ന് വന്ന്